ഹലോ ഇത് ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലേ ഞാൻ ഈ പാലക്കാട് പട്ടാമ്പി ഭാഗത്ത് നിന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ വീട്ടിൽ ടി വി കണ്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഒരു വാർത്ത കണ്ടുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കരണ്ട് പോയി എന്താണ് ഉണ്ടായതെന്ന് അറിയില്ല സംഭവം എന്താ അത് ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞു തരാൻ പറ്റുമോ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതാണോ ഞങ്ങൾ ഞങ്ങളുടെ ഇവിടുത്തെ മാത്രമായിട്ടുള്ള പ്രശ്നമാണോ അല്ല മൊത്തത്തിൽ എല്ലായിടത്തേയും കറണ്ടിൻ്റെ പ്രശ്നമാണോ എന്ന് നിങ്ങൾ പറഞ്ഞ് തരാൻ പറ്റുമോ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഇത് നടക്കുന്നത് ഇത് ഇപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് നടക്കുന്നുണ്ട് കാരണം ടി വി കാണുക അല്ലെങ്കിൽ വാർത്ത കാണുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കറണ്ട് പോകുക